എൻ്റെ കുട്ടിക്കാലം ഇപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് ആ എൻ്റെ സ്കൂൾ മുറ്റത്ത് ഓരോ മണൽ തരിയും മാറ്റ് കുഞ്ഞു കുഞ്ഞ് കല്ലും മാറ്റി കുഞ്ഞു കുഞ്ഞ് മുത്തുകൾ പെറുക്കുന്നതാണെൻ്റെ കൺമുൻപിലിപ്പോഴും നിൽക്കുന്നത് അതു പോലെ തന്നെ മയിൽപ്പീലി ആരെങ്കിലും കൊണ്ടു വന്നതിൻറ്റകത്തു നന്നൊരു കഷ്ണം തരാമോയെന്നു ചോദിച്ച് മേടിക്കുന്ന സൂര്യപ്രകാശം കാണാതെ ബുക്കിൻ്റടിയിലൊളിപ്പിച്ചത് പ്രസവിക്കുമെന്നു പറഞ്ഞ് അത് സൂക്ഷിച്ചു വെക്കുന്നതും പിന്നെ പക്ഷിയുടെ തൂവലുകൾ പെറുക്കി കരുമ്പനടിച്ചതു പോലെ ഇരിക്കുന്ന വെള്ളയിൽ പക്ഷി തൂവലുകളൊക്കെ പെറുക്കി സൂക്ഷിക്കുന്നതും പിന്നെ നല്ല മിനുസ്സമുള്ള കല്ലുകളൊക്കെ സൂക്ഷിക്കുന്നതും പിന്നെ തീർന്ന പേന അതു പോലെ സോപ്പ് പെട്ടിയുടെ കവറുകൾ അങ്ങനെയൊക്കെ സൂക്ഷിക്കുന്നതൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ആ മയിൽപ്പീലി സൂക്ഷിച്ചു വെച്ചാൽ പ്രസവിക്കുമെന്നു പറഞ്ഞ് ഞാൻ ശരിക്കും വിശ്വസിച്ചു എന്നിട്ട് രാത്രി ആകുമ്പോഴൊക്കെ ഈ ആ എല്ലാവരോടും പറഞ്ഞിട്ട് പോയി പയ്യെ പോയി തുറന്നു നോക്കുന്നത് ഇടക്കിത് ആരോ തുറന്നു നോക്കിയിട്ടാണെൻ്റെ ഇത് വിരിയാത്തതെന്നൊക്കെ പറഞ്ഞ് വഴക്ക് ഉണ്ടാക്കുന്നത് ആരൊക്കെ ഓർമ്മ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഇന്നത്തെ കുട്ടികൾ ശരിക്കും ആ ഒരു രീതിയിലേക്ക് വളർന്നിട്ടുണ്ടെന്നറിയത്തില്ല ഇപ്പം അവർക്ക് അതറിയാമോ എന്നു പോലും അറിയത്തില്ലേ എത്ര മാത്രം അതിനെ വിശ്വസിക്കുന്നു അപ്പം നമ്മളത് പറഞ്ഞാൽ തന്നെ എത്ര മാത്രം നമ്മളെ എന്നെ കൃട്ടിക്കലായിട്ടായിരിക്കും അവർ ചിന്തിക്കുന്നതൊക്കെ എൻ്റെ മനസ്സിലിപ്പോൾ തോന്നുന്നത് ശരിക്കും ആ ഒരു ഞങ്ങളുടെയൊക്കെ ആ കുഞ്ഞിൻത്തൊരിരുപത് വർഷം പഴക്കമുള്ള ഒരു കുട്ടിക്കാലം ഒന്നും ഇപ്പം തിരിച്ച് കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഇപ്പം എല്ലാവരും ഫോണിൻ്റെ ഒരഡിക്ഷനിലാണ് ഗെയിം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതു പോലെ തന്നെ കേൾക്കുന്നതും ചിന്തിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം ആ വളരെ വ്യത്യസ്തമാണ് വയലൻസിനെ കുറിച്ചാണ് അതായത് എത്ര മാത്രം എന്നാ നേടിയെടുക്കുക അതായത് എത്ര മാത്രം മറ്റുള്ള ഒരാളെ കീഴ്പ്പെടുത്തുക അങ്ങനെയാണ് ഓ പുതിയതിനെ ഉണ്ടാക്കി എടുക്കുക പുതിയ രൂപങ്ങൾ കണ്ടു പിടിക്കുക പുതിയ സാധനങ്ങളിലേക്കതായത് പുതിയ ശേഖരങ്ങൾ നടത്തുകയൊന്നും അല്ല ഇപ്പം എല്ലാ വയലൻസിൻ്റെ പുറത്തേക്കാണ് കുട്ടികൾ നീങ്ങുന്നത് ആ ഒരു നിഷ്ക്കളങ്കതയോ അതൊന്നും ഇന്ന് ഇന്നു കാണാൻ പറ്റിയിരുന്നത് അതു പറഞ്ഞാൽ തന്നെ അവരുടെ മനസ്സിലേക്കത് ഒരു ചോദിക്കട്ടെ നമ്മളെ എ എതിർക്കുന്ന ആ മയിൽപ്പീലി പ്രസവിക്കുമോ അങ്ങനെയൊക്കെയായിരിക്കും അവർ ചിന്തിക്കുന്നതു തന്നെ